ഞാനിപ്പോള് തയ്ക്കുന്നത് എന്റെ സ്വന്തം ആവശ്യങ്ങള്ക്കുള്ളത് സ്ത്രീകളുടെ ഡ്രസ്സുകളെല്ലാം ബ്ലൗസ് ചുരിദാറ് കുട്ടികള്ക്കുള്ള ഉടുപ്പ് ഒക്കെ തയിക്കും എങ്കിലും കൂടുതലായിട്ട് എല്ലാ രീതിയിലുള്ള തുണിത്തരങ്ങളും തയ്ക്കാനായിട്ടാണ് എനിക്ക് ആഗ്രഹം എന്നാല് പാന്റ് ഷര്ട്ടും എല്ലാം അങ്ങനെയുള്ള എല്ലാത്തരം തുണികളും ഒക്കെ തയ്ക്കാനായിട്ടുള്ള പ്രാപ്തിയായിട്ട് ഒരു തയ്യല് യൂണിറ്റ് തുടങ്ങുകയാണെങ്കില് എനിക്കും മറ്റുള്ളവര്ക്കും പ്രയോജനപ്പെടും നമ്മുടെ കുറേയാള്ക്കാര്ക്ക് ജോലി കൊടുക്കാനും സാധിക്കും പിന്നെ അത് നമ്മള്ക്ക് ഒരു സ്ഥിരമായിയൊരു നല്ല വരുമാനത്തിന് മാര്ഗം കൂടിയാണ് അതുകൊണ്ട് തയ്യല് നേടിയെടുക്കാനാഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിലെനിക്ക് നല്ല പ്രഫഷണലായിട്ട് തയ്ച്ച് പഠിച്ച് എനിക്ക് കുടുംബത്തിനെ നല്ല ഒരു വരുമാനമാര്ഗമാക്കിയെടുക്കാനായിട്ടുള്ള ആഗ്രഹമാണെനിക്കുള്ളത് കൂടാതെ എന്റെ കൂട്ടുകാര് ജോലിയില്ലാതിരിക്കുന്നവര് നല്ല കഴിവുള്ളവരൊത്തിരി പേരുണ്ട് അവരെയും കൂടെ ഉള്പ്പെടുത്തി നല്ല ഒരു തയ്യല് യൂണിറ്റ് തുടങ്ങാനായിട്ട് എനിക്ക് ആഗ്രഹം